ലോക്ഡോണിൻ്റെ കാലത്ത് ഞാൻ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത ഫുഡിൻ്റെ എന്നൊക്കെ പറയുകാണെങ്കിൽ നമ്മള് തോടുപോലുള്ള സ്ഥലത്ത് നിന്നൊക്കെ മീന് പിടിച്ചിട്ട് വെറൈറ്റി ആയിട്ട് ഗ്രേവി ഒക്കെ ഇട്ട് ട്രൈ ചെയ്ത് ഫിഷ് ഫ്രൈ ചെയ്തിട്ടൊക്കെയുണ്ടായിരുന്നു പിന്നെ വേറെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്തത് എന്താ പറയുക നമ്മളുടെ ചിക്കനില് തന്നെ എന്താ പറയുക വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്തു ഈ എന്താ പറയുക ബക്കറ്റ് ചിക്കൻ എന്നൊക്കെ പറഞ്ഞു അങ്ങനൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കുക്കിങ്ങില് ഞാൻ വെറൈറ്റി ആയിട്ട് പരീക്ഷിച്ചത് പിന്നെ എന്താ പറയുക ഇതിന്റെയൊപ്പം തന്നെ ഞാൻ വേറെയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളു വെജിറ്റബിൾ കറി ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു സാംബാർ ഒക്കെ ഉണ്ടാക്കാൻ അത് വെറൈറ്റി അല്ല എന്നാലും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു സാമ്പാറും കാര്യങ്ങളും ഉണ്ടാക്കാൻ ഒക്കെ ഞാൻ വീട്ടിൽ നിന്ന് അമ്മേനെ ഹെല്പ് ചെയ്യുകയും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡിൻ്റെ ഞാൻ കാര്യത്തിൽ ഞാൻ വീട്ടുകാരെയൊക്കെ അൽമോസ്റ്റ് ഹെല്പ് ചെയ്യലൊക്കെയുണ്ട് എന്താ പറയുക വീട്ടില് അമ്മ ഒറ്റക്ക് ആണല്ലോ ഈ കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോയിട്ട് അമ്മേനെ ഹെല്പ് ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഗ്രേവികളിൽ ഞാൻ പറഞ്ഞല്ലോ ഫിഷിൻ്റെ കാര്യത്തിൽ തന്നെയാണ് ഞാൻ വെറൈറ്റി ഗ്രേവി ഒക്കെ ട്രൈ ചെയ്തത് ഫിഷ് ഫ്രൈ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ അൽമോസ്റ്റ് എല്ലാവർക്കും അത് ഇഷ്ട്ടപെടുകയും ചെയ്തു